നമ്മൾ കേരളീയരായ നമ്മൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വീടിൻ്റെ മുറ്റത്ത് തിണ്ണയിൽ മുറ്റത്ത് ചാണകം മെഴുകുകയും വൃത്തിയാക്കുകയും ചെയ്യുന്നു അത് നമ്മുടെ എന്താ പറയുക അത് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗവും വൃത്തിയുടെ ഭാഗവുമായിട്ടാണ് ചാണകം ഉപയോഗിക്കാറുള്ളത് ഈ ചാണകം മെഴുകുന്നതിലൂടെ നമ്മൾ എന്താ മണ്ണിനെ ദൃഢമാക്കുകയും നമ്മുടെ പ്രതലം വൃത്തിയാക്കുകയും ചെയ്യുന്നുണ്ട് ചാണകം എല്ലാർക്കും അറിയാവുന്നതാണ് നമ്മുടെ ശുദ്ധിയുടെ ഭാഗമായിട്ട് ശുദ്ധി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചാണകം മെഴുകുന്ന രീതി പുരാതനകാലം തൊട്ടേ കേരളീയരായ നമ്മൾ ഉപയോഗിക്കാറുണ്ടായിരുന്നത് ഇപ്പോഴും ഇപ്പം ഇപ്പോൾ നമ്മൾ ചാണകം മെഴുകലെന്നുള്ളതൊക്കെ ഇപ്പം വളരെ കുറഞ്ഞ് ഗ്രാമതലങ്ങളിലാണ് ഗ്രാമീണരായ ഇപ്പം കർഷകരാണ് ഇങ്ങനെയുള്ള പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പോന്നിരിന്നത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ എല്ലാവരും ഹൈടെക്ക് ആകുകയും അതോടൊപ്പം തന്നെ ടൈലും തിണ്ണ മുറ്റം ടൈല് പാകിയതായതുകൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല എങ്കിലും നമ്മുടെ സംസ്കാരത്തിൻ്റെ ശുദ്ധിയുടെ ഒരു ലക്ഷണമാണ് ശുദ്ധം വരുത്തുക എന്നുള്ളതും ചാണകം മെഴുകുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടും നമ്മൾ കൈക്കാറ് കൈക്കൊള്ളാറുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പഴയ സംസ്കാരത്തിലുണ്ടായിരുന്ന ശുദ്ധതയൊക്കെ ഇപ്പം കുറഞ്ഞുകൊകൊണ്ട് പ്രകൃതിയെ മലിനമാക്കുന്ന രീതിയിലുള്ള രീതി സംസ്കാരമാണ് ഇപ്പോഴുള്ള തലമുറ കൈക്കൊള്ളുന്നത് എങ്കിലും നമ്മൾക്ക് പഴയ രീതിയിലേക്ക് കടന്നുവരുവാനായിട്ട് സാധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ കർഷകരായ ആളുകൾ ഇപ്പോഴും ആ സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ശൈലിയായി ജീവിതശൈലിയായി അവരീ ചാണകം മെഴുകി വീടും പരിസരവുമൊക്കെ വൃത്തിയാക്കുകയും പണ്ട് കാലങ്ങളിൽ ചാണകം വീടിൻ്റെ അകത്ത് പോലും തറയിലൊക്കെ ചാണകം മെഴുകുമായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറിമറിഞ്ഞിരിക്കുന്നു അതിൻ്റേതായ പരിണിതഫലങ്ങളും നമ്മൾ പുതിയ സംസ്കാരത്തിലേക്ക് പോയതോടുകൂടി നമുക്ക് അനുഭവിക്കാറുണ്ട് എന്നുള്ളതും എൻ്റെ അഭിപ്രായമാണ് നമ്മളുടെ രോഗാണുക്കളുടെ നിയന്ത്രണം പൊടി ഇല്ലാതാക്കാൻ രോഗാണുക്കൾ വരാം വൈറസുകളുടെയൊക്കെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ശുദ്ധിയുടെ ഭാഗമായിട്ട് ചാണകം ഉപയോഗിക്കാമെന്ന് ആണെൻ്റെ അഭിപ്രായം ഇതിനോട് ഞാൻ യോജിക്കുന്നു

ഹലോ മാഡം ഇത്രയും മതിയോ ഇത്രയൊക്കെ മതി